തിരുവാതിരക്കളി ഓണം തിരുവാതിരക്കളി ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ നാടകം തിരുവാതിരക്കളി അതൊക്കെയാണ് കേരളത്തിലെ പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് പാട്ട് ഗാനമേള പാട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആകർഷിക്കുന്ന ഒന്നാണ്